പഴമയുടെ സംസ്കാരത്തെ വിളിച്ചോതുന്ന ഒരു ജില്ലയാണ് വയനാട് വയനാട് ജില്ലയിൽ ഒരുപാട് നാടൻ കലാരൂപങ്ങളും കരകൗശല വസ്തുക്കളും ഉണ്ടാക്കപ്പെടുന്നു കാരണം മുള കൊണ്ടും ഓട കൊണ്ടും ഉള്ള ഒരുപാട് കരകൗശല വസ്തുക്കൾ വയനാട് ജില്ലയിൽ നിന്നും പ ഉണ്ട് അത് വാങ്ങാൻ വേണ്ടി പുറത്തുള്ള ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ടും അങ്ങനെയൊക്കെ വരുന്നു ഇത് അന്യം നിന്ന് പോകാണ്ട് പാരമ്പര്യമായിട്ട് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുമുണ്ട് അപ്പൊൾ ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് വയനാട് ജില്ലയിൽ ടൂറിസ്റ്റുകളായിട്ട് ഒരുപാട് പേർ വരുന്നുണ്ടല്ലോ അപ്പൊൾ അവരത് വാങ്ങുകയും മറ്റുള്ള ആൾക്കാര് അത് കാണുകയും മറ്റുള്ള സംസ്ഥാങ്ങളിൽ അത് പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു പിന്നെ കോൽക്കളി കയർ വട്ടക്കളി ഇവയൊക്കെ നമ്മുടെ ഓരോരോ ഓണം വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരുപാട് ഇടങ്ങളിൽ അവതരിക്കപ്പെടുന്നുണ്ട് അങ്ങനെയും ഇതൊക്കെ നിലനിന്ന് പോവുന്നു